അടുക്കളയിൽ എലീനെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും എലിപ്പെട്ടിയാണ് യൂസ് ചെയ്യുക കാരണം എന്നു വച്ചാൽ അതിന് അതിനകത്ത് തേങ്ങാക്കൊത്തിൻ്റെ ഒരു ഇതു വച്ചു കഴിഞ്ഞാൽ എലി വന്ന് അത് കടിക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഒറ്റ ഇതു വീഴുമ്പോൾ പെട്ടെന്ന് എലി ചത്തുപോവും പിന്നെ ഒന്ന് എലിപ്പെട്ടി അങ്ങനത്തെ എലിക്കത്രികയെന്ന് പറയും അതാണ് കൂടുതലും വയ്ക്കുക എലിക്കത്രികയെന്ന് പറഞ്ഞ സാധനം പിന്നെ പണ്ട് ഉള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷം ഇപ്പം പഴത്തിലാണെങ്കിലും നമ്മൾ വിഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എലിവിഷം വാങ്ങാൻ കിട്ടും അതു മെല്ലെ അതിൻ്റെ ഉള്ളിലേക്കു വച്ചു കഴിഞ്ഞാൽ ഈ പഴം ആണെങ്കിലും തേങ്ങാക്കൊത്താണെങ്കിലും അതു വന്ന് തിന്ന് കഴിഞ്ഞിട്ട് എവിടെ എങ്കിലും പോയി ചാകും പിന്നെ നമ്മൾ അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി പിന്നെ ഉള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പെട്ടി പോലത്തെ ഒരു എലി എലിപ്പെട്ടി ഉണ്ട് അതിനകത്ത് ഇങ്ങനെ തേങ്ങാക്കൊത്തോ അങ്ങനെ എന്തെങ്കിലും വച്ചു കഴിഞ്ഞാൽ ഇത് വന്ന് കുടുങ്ങി കഴിയുമ്പം ആ അതിൻ്റെ ആ വാതിൽ അടയും വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എന്തെങ്കിലും കാണിച്ച് കൊല്ലുകയോ ഇപ്പോൾ വെള്ളത്തിൽ മുക്കി കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയും കൊല്ലാം പാറ്റേനെ കൊല്ലുന്നത് വച്ച് കഴിഞ്ഞാൽ പാറ്റഗുളിക വാങ്ങി എന്തെങ്കിലും ആക്കും ഇല്ലെങ്കിൽ പാറ്റേൻ്റെ ഒരു സ്പ്രേ ഉണ്ട് ഒരു ഹിറ്റ് എന്നു പറഞ്ഞ സാധനം അത് അടിച്ചു കഴിഞ്ഞാലും പാറ്റ ചാവുന്നതാണ് അങ്ങനെയാണ് പാറ്റേനെ ഒഴിവാക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം ഇത് രണ്ട് ഈ രണ്ട് മാർഗ്ഗങ്ങളാണ് കൂടുതലും എലിയിനേയും പാറ്റേനേയും ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടു ചെയ്യുന്നത്